എനിക്കൊരു പരാതിയുണ്ടായിരുന്നത് ഞാൻ മുൻപേ വിളിച്ച് ഓഡർ ചെയ്തത് പ ഫുഡ്ഡല്ല എനിക്ക് കിട്ടിയത് ഞാൻ ഓഡർ ചെയ്തത് എന്നാ എനിക്ക് ചപ്പാത്തിയും വെജിറ്റബിള് കറിയായിരുന്നു എനിക്ക് വന്നത് പൊറോട്ടയും ബീഫ് കറിയാണ് എനിക്കതല്ലായിരുന്നു വേണ്ടത് എനിക്ക് ഓഡർ ചെയ്ത സാധനമാണ് വേണ്ടത് നിങ്ങൾ ഇങ്ങനെ തെറ്റിച്ച് ഡെലിവറി ചെയ്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഡെലിവറി ചെയ്യുമ്പോൾ അതൊക്കെ നോക്കി ചെയ്യേണ്ടേ ഞാന് പേ പേമെന്റും നടത്തിയതാണ് കറക്റ്റായിട്ട് ഇതിപ്പോൾ ഡെലിവറി ചെയ്ത ആൾക്ക് മാറിപ്പോയതാണോ വിളിച്ച് ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ടു തന്നെയാണ് ഞാന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്താ ഇങ്ങനെ സംഭവിച്ചേ എന്നുള്ളത് എനിക്കറിയത്തില്ല അന്നേരം ഇതിപ്പോൾ ഞാൻ ആരുടെ അടുത്താണ് കംപ്ലൈന്റ് ചെയ്യേണ്ടത് എന്നറിയാനായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഞാന് റെസ്റ്റോറന്റിലേക്കാണ് വിളിച്ചത് ഇപ്പോൾ ആരു ടെ കയ്യിലെ മിസ്റ്റേക്കാണെന്ന് എനിക്കറിയത്തില്ല അന്നേരം അതിനെ കുറിച്ച് ഒന്നു പറയാൻ വേണ്ടിയാണ് ഈ ഓഡർ ഈ ഡെലിവറി ചെയ്യുമ്പത്തേന് ഓരോ കസ്റ്റമറും ഓഡർ ചെയ്യുന്ന അതേ സാധനം തന്നെ അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടേ അത് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പിൻ മേലല്ലേ അവർ ഓഡർ ചെയ്യുന്നത്